ഡാൻസുകളെപ്പറ്റി നൃത്തങ്ങളെപ്പറ്റി അത്ര വലിയ അറിവുകളൊന്നും ഇല്ലെങ്കിലും എന്നാലും കൂടുതലും ക്ലാസിക് ഡാൻസുകൾ കണ്ട് ആസ്വദിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അതിൻ്റെ ഓരോ ഭാവങ്ങളും ചലനങ്ങളും ഇതെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണ് പിന്നെന്ന് വെച്ചാൽ മറ്റേ സിനിമാറ്റിക് ഡാൻസ് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ലാസിക്കൽ ഡാൻസാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് എല്ലാ ആൾക്കാർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്നതും കണ്ടിരിക്കാൻ പറ്റുന്നതും കുറച്ച് പഴയ കുറച്ച് പ്രായം ഉള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ എൻ്റെ ഒരു ഇതില് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതുപോലെ തന്നെ അവർക്കും ക്ലാസ്സിക്കൽ ഡാൻസ് ആവാനാണ് ഇഷ്ടം എന്ന് തോന്നുന്നു കൂടുതലിഷ്ടം എന്ന് തോന്നുന്നു എനിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം